സമ്മാനമായിട്ട് പറയാൻ കവിതകളൊന്നും എഴുതിയിട്ടില്ല പക്ഷേ കവിതകൾ കേൾക്കാനും എഴുതാനും ഇഷ്ടമാണ് ഇപ്പോൾ ഏതു രീതിയിലുള്ള കവിതയാണെങ്കിലും അതിന് അത്ര മലയാളം കാര്യങ്ങളും മീനിങ് ഒന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും നല്ല രീതിക്കുള്ള കവിത എഴുതാനും കേൾക്കാനും പാടാനുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളുതന്നെയാണ് ഇപ്പോൾ ഒരു തവണ എഴുതിയിട്ടുണ്ട് കവിത പക്ഷേ ആർക്കും സമ്മാനമായിട്ട് കൊടുത്തിട്ടൊന്നുമില്ല ഒരു നാച്ച്വറൽനെക്കുറിച്ചൊരു പ്രകൃതി സംരക്ഷണത്തിനെക്കുറിച്ചൊരു തവണ ഞാൻ കവിത എഴുതിയിട്ടുണ്ട് നല്ലരീതിക്കുതന്നെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഗിഫ്റ്റായിട്ട് സമ്മാനമായിട്ടൊന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല അതെൻ്റെ കൈപ്പക്കൽത്തന്നെ ഉണ്ടെന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം അത് കവിതയെഴുതണത് നല്ലതുതന്നെയാണ് നല്ല രീതിക്ക് നമ്മുടെ മലയാളവും അതുപോലെതന്നെ മീനിങ് കാര്യങ്ങളെല്ലാം വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും